ഹലോ മാം ഹലോ ഷുവർ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കേരളത്തിലെ തനത് കലകളെ പറ്റി പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങള് പറയാനുണ്ട് നമ്മുടെ ആ ആലപ്പുഴയിൽ ആണ് കൂടുതലായിട്ടും നമ്മള് വർക്ക് ചെയ്യുന്നത് അപ്പോൾ ആലപ്പുഴയിലെ നമുക്ക് ബീച്ചും കായലും കായല് പ്രദേശങ്ങളും കായലോരങ്ങളൊക്കെ ഉണ്ട് അവിടെയൊക്കെ നമുക്ക് നമ്മുടെ തനത് കലകൾ നമ്മുടെ കേരളത്തിന്റെ കലകൾ പ്രദർശിപ്പിക്കാൻ ഒരുപാട് പരിപാടികൾ നമ്മള്

അപ്പോൾ ന നമ്പ്യാർകൂത്തുണ്ട് മോഹിനിയാട്ടം നിറയാട്ടം പടയണി ഇതെല്ലാം നമ്മള് നമ്മുടെ സ്ഥലത്ത് നമ്മള് പ്രദർശിപ്പിക്കാറുണ്ട് അത് ആൾക്കാരൊക്കെ വളരെ ഇഷ്ടകരമാണ് കഥകളി എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാമല്ലൊ അത് തെ പല പല നിറങ്ങളുണ്ട് പച്ച തെയ്യം അങ്ങനെ ഒരുപാട് ഒരുപാട് വർണ്ണങ്ങളിലെ ഒരു സവിശേഷതയാണ് കഥകളി എന്ന് പറയുന്നത് തന്നെ പിന്നെ അത് മാത്രം അല്ല കഥകളി മാത്രം അല്ല തെയ്യം തുളളലുകള് ഓട്ടംതുള്ളല് അങ്ങനെ അങ്ങനെ പിന്നെ കോലംതുള്ളല് അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങള് കേരളത്തില് മാത്രമായിട്ട് അവകാശപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്കുണ്ട് തനത് കേരള കലകൾ അതിന്റെ മാറ്റ് ഒട്ടും കുറയ്ക്കാതെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തിലാണ് നമ്മള് ഈ ഒരു പരിപാടി ഇവിടെ അവതരിപ്പിക്കുന്നത് പിന്നെ ഇൻ ഇൻഡ്യയുടെ തന്നെ തെക്കേ അറ്റത്ത് കിടക്കുന്ന ആ പുന്നമ്മടക്കായലുണ്ട് അപ്പം അത് ആ ഒരു ഭാഗത്ത് ആയിട്ടാണ് നമ്മള് കൂടുതലായിട്ടും പിന്നെ ആലപ്പുഴയുടെ എല്ലാ നമുക്ക് ഹൗസ്ബോട്ടുകളുണ്ട് അപ്പോൾ ആ ഒരു രീതിയില് നമുക്ക് അത് മാത്രം അല്ല കെട്ടോ നമുക്ക് ഇതും ഉണ്ട് എന്താ പ പല നൃത്ത ആവിഷ്കാരങ്ങളും ഉണ്ട് കേട്ടോ അതായത് കല്യാണത്തിന്റെയൊക്കെ തലേദിവസം നടത്തുന്ന നൃത്തങ്ങളില്ലേ ആ അങ്ങനെയും തനത് നമ്മുടെ കേരളത്തിന്റെ അ അതെ യാ അതെ അതെ കൂടുതൽ അറിയാനുണ്ട് കാരണം കണ്ട് മനസിലാക്കാൻ പറ്റുമല്ലോ ഏറ്റവും നന്നായിട്ട് അതാണ് ഏറ്റവും വലിയ കാര്യം നമുക്ക് കണ്ട് മനസിലാക്കാണേൽ കുറച്ചും കൂടെ നമ്മുടെ മനസിലേക്ക് പതിയും കേരളത്തിന്റെ അതെ അതെ അതെ അതെ

ആ അത് മാർഗംകളിയുടെ കാര്യം ഞാൻ പറയാം മാർഗംകളി അതിനു മാർഗംകളി എന്ന് പറയുക ചട്ടയും മുണ്ടും ഉടുത്തിട്ട് പഴയ തനതായ രീതിക്ക് ഒരു സമയങ്ങളിലെ രീതിയായിരുന്നു എന്നുവെച്ചാൽ മാർഗംകളി അപ്പോൾ മാർഗംകളിയൊക്കെ അതിന്റെ അതേ മാറ്റില് നമുക്കത് അവതരിപ്പിക്കാൻ ഇവിടെ കുട്ടികളുണ്ട് നമ്മളത് അവതരിപ്പിക്കുന്നതാണ് അത് വളരെ ചെറിയൊരു പൈസയും അതെ അതെ ക്രിസ്ത്യാനികളുടെയാണ് മാർഗംകളി അപ്പോൾ തോമസ്ലീഹായുടെ ഒരു ഒരു ഒരു ആവിഷ്കാരമാണ് അദ്ദേഹത്തിന്റെ ഒരു ഓർമയ്ക്കു വേണ്ടി അങ്ങനെയുള്ള ഒരു കലയെ രൂപമാണ് എന്നാൽ കൂടി കേരളം അങ്ങ അങ്ങോളം എല്ലാവരും ഹൃദയത്തോട് ചേർത്ത് വെച്ച ഒരു കലാരൂപം കൂടിയാണ് മാർഗം കളി ഇപ്പോൾ കഥകളിക്ക് ഹിന്ദു ഹിന്ദുക്കളുടെ ആണെന്ന് പറയും എന്നാൽ അത് കേരളത്തിന്റെ മുഴുവനും സ്വത്താണല്ലോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കൂ കേട്ടോ അതും കാണാൻ പറ്റും ഞങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇവിടെ ഈ ഒരു പാക്കേജിലേക്ക് വിളിക്കുകയാണെങ്കിലെ ഒരു രണ്ടായിരം രൂപകൊടുത്ത് പാക്കേജ് എടുക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാ കാര്യങ്ങളും നമുക്ക് എടുക്കാം ഇവിടെ വരുന്ന ദിവസം മുന്നേ മാം ഒന്ന് വിളിച്ചാൽമതിയാവും ഒരു നാലു ദിവസത്തിനുള്ളിൽ നമുക്ക് ഇതെല്ലാം കാണാൻ പറ്റും ഇതിന് നമ്മള് ഈ ഒരു നാലു ദിവസത്തെ പാക്കേജ് നമ്മള് വാങ്ങിക്കുന്നത് പതിനായിരം രൂപയാണ് കാര്യം അതിനുള്ളത് വർത്ത് ആണ് പല കാര്യങ്ങൾ ഇൻവോൾവ് ചെയുന്നുള്ളത്കൊണ്ട് അത് നമ്മൾ ഇപ്പോൾ പൊതുവായിട്ട് അത് നമ്മള് പൊതുവായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നില്ല മാം കുറച്ച് ടെക്നിക്കൽ ഡിഫ്ഫികൽറ്റീസ് ഉള്ളത് കൊണ്ടാണ് അപ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതി നമ്മള് ഇവിടെ ഉണ്ടാകും അപ്പോൾ വിളിച്ചതിന് വളരെ നന്ദി അതെ അതെ അതെ അതിന്റെ ഇതിൽ കൂടുതൽ ഡീറ്റൈൽസിന് മാം നാളെ ഒന്നു വിളിക്കുമോ ഞാൻ കൃത്യം പറയാൻ പറ്റും ഓക്കെ ഇൻക്ലൂഡെഡ് ആണ് അതെ അതെ ഫുഡെല്ലാം ഇതിനകത്ത് ഉൾപ്പെടും താങ്ക്യു ഓക്കേ